ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾക്ക് കൂടുതലായിട്ടും കിട്ടുന്ന മീനുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തി കിട്ടാറുണ്ട് അയല കിട്ടാറുണ്ട് അയക്കൂറ കിട്ടാറുണ്ട് പിന്നെ ചെമ്പല്ലി സ്രാവ് ഇങ്ങനത്തെ പല രീതിയിലുള്ള മീനുകളുണ്ട് ആ ഇപ്പം ഇതൊക്കെ നമുക്ക് മെയ്നായിട്ട് നമുക്ക് ഇവിടെനിന്ന് ഫിഷിങ് നടത്തി കിട്ടുന്ന ഒന്നാണ് ഇപ്പം നമുക്ക് ഒരുപാട് മത്സ്യങ്ങൾ കിട്ടാറുണ്ട് നമ്മളതെല്ലാം കഴിച്ചിട്ടുമുണ്ട് അപ്പം നല്ലൊരു എല്ലാവരും കൂടുതലായിട്ട് വാങ്ങുന്ന മത്സ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാലത് മത്തി തന്നെയാണത് അപ്പം മത്തിയാണ് കൂടുതലായിട്ടും ആൾക്കാർ വാങ്ങുന്നത് പിന്നെ പല രീതിയിലുള്ള വലിയ മീനുകളുണ്ട് ആ അതൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കഷ്ണമാക്കിയിട്ട് ഇവിടെനിന്ന് ഇവിടെനിന്നു തന്നെ അത് അതിൻ്റെ പാകത്തിനാക്കിയിട്ട് റെഡി ആക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ അടുത്തു നിന്നാണ് കൂടുതലായിട്ട് നമ്മൾ വാങ്ങാറുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ മത്സ്യം കിട്ടാറുള്ളതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മത്സ്യങ്ങളുണ്ട് ഇപ്പം സ്രാവ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടി സ്രാവുണ്ടാകും വലിയ സ്രാവുണ്ടാകും ഇതിനൊക്കെ പല രീതിയിലുള്ള വിലകളാണ് ഇപ്പം ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ലേശം റേറ്റ് കുറവായിരിക്കും കാരണം നമ്മളിപ്പം ഇവിടെനിന്ന് കടലിൽ നിന്ന് തന്നെ പിടിച്ചിട്ട് വരുന്നത് കൊണ്ട് നമ്മളുടെയടുത്തുനിന്ന് നേരിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റൊക്കെ കുറച്ചിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആകും അപ്പം മത്തിക്ക് ചിലപ്പം നമ്മൾ അറുപത് രൂപക്കൊക്കെ ആയിരിക്കും കൊടുക്കുക ചിലപ്പം പുറമേ വരുമ്പം നൂറ്റി ഇരുപത് ഇരുനൂറ് രൂപയൊക്കേടെ അടുത്തൊക്കെ വരും ഓരോ മീനിനും ഓരോ റേറ്റാണ് ഓരോ ദിവസം നമ്മൾ മാറ്റി കൊണ്ടിരിക്കും